ഇന്ത്യയില് തന്നെ വളരെ വളരെ അല്ല ഏറ്റവും മുന്നേ ഉണ്ടായിരുന്ന ഒരു ഭാഷയായിരുന്നു സംസ്കൃതം അപ്പം ആ ഒരു സംസ്കൃതത്തില് നിന്നാണ് എല്ലാ ഭാഷകളും ഉണ്ടായിരുന്നതെന്നു തന്നെയാണ് പൊതുവേ ചരിത്രകാരും എല്ലാവരും പറയുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പോലത്തെ ഏറ്റവും ആധുനിക ഭാഷ ആയ ഇംഗ്ലീഷ് വരെ ഈ സംസ്കൃതം എന്ന് പറഞ്ഞ ഭാഷയെ സ്വാധിച്ചു കൊണ്ടാണ് പുരാതന ലോകത്ത് നിന്ന് നമ്മുടെ ആധുനിക ലോകത്തിലേക്ക് ഭാഷകള് ഇങ്ങനെ ആയി മാറിയത് അപ്പം സംസ്കൃതം മലയാളത്തെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിലെ പല പദങ്ങളും ഈ ഭാഷ ഉണ്ടാവുന്നതിലേക്ക് വളരെ സഹായകകരമായി മാറി ഇതിപ്പം കാലം മാറുന്നതിനനുസരിച്ച് ഭാഷ മാറുന്നത് പോലെ അങ്ങനെ ഒരു അതിന്റെ വ്യക്തമായ ഒരു സ്വാധീനം ഇംഗ്ലീഷ് ഭാഷയും സ്വ സംസ്കൃത ഭാഷയും ഒക്കെ നമ്മുടെ മലയാള ഭാഷയിൽ ചെലുത്തിയിട്ടുണ്ട് ഏറ്റവും പുരാതനമായ ഒരു സംസ്കൃ ഭാഷ ആകുമ്പോള് തന്നെ അത് എത്രത്തോളം മലയാളത്തെയും ഇംഗ്ലീഷിനെയും അല്ലെങ്കിൽ മറ്റു ഭാഷകളെയും എത്രത്തോളം സ്വാധിനിക്കുമെന്നു നമുക്ക് മനസിലാക്കാവുന്നതേ ഉള്ളൂ